ഞങ്ങളുടെ പ്രദേശങ്ങളില് ഞങ്ങളുടെ ഭാഷയല്ലാതെ മെയിനായിട്ട് ഇംഗ്ലീഷ് പത്രമുണ്ട് ഇംഗ്ലീഷെന്ന് പറയുമ്പോള് ഇന്ത്യൻ എക്സ്പ്രെസ്സ് ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇതൊക്കെയാണ് പ്രസിദ്ധികരിക്കപ്പെടുന്നത് അത് എല്ലാ ദിവസങ്ങളിലൊന്നും കൃത്യമായി കിട്ടാറില്ല ചിലപ്പോള് തലേദിവസത്തെ മുൻ രണ്ട് ദിവസം മുൻപത്തെ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നത്തെ അങ്ങനെയുള്ള പത്രങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഈ പത്രങ്ങളെന്ന് പറയുമ്പോള് വളരെ ഡീറ്റെയിലായിട്ട് ഡീറ്റെയിൽഡ് എന്നുപറയുമ്പോള് വിശദമായി കാര്യങ്ങളെല്ലാം പറയാറുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാനാണ് അതില് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നല്ല വളരെ വിശദമായും പിന്നെ നല്ല ലാംഗ്വേജില് നല്ല ഭാഷയില് കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസത്തെയും പത്ര മാധ്യമങ്ങളില് വരുന്ന വിശ്വസനീയമായ കാര്യങ്ങള് കൂടുതലും ഇന്ത്യൻ എക്സ്പ്രെസ്സിലുണ്ട് അതുപോലെത്തന്നെ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ എല്ലാം നല്ലതുതന്നെയാണ് എന്നാലും കൂടുതലായിട്ട് ഇന്ത്യന് എക്സ്പ്രസാണ് എനിക്ക് കൂടുതലിഷ്ടം അതുപോലെ ഞങ്ങളുടെ പ്രദേശങ്ങളില് എല്ലാ വീടുകളിലൊന്നും ഇതൊന്നും വരുത്തുന്നില്ല അത് ഇവിടെ കൂടുതലും ലോക്കൽ ലോക്കലായിട്ടുള്ള അതായത് അതാത് പ്രദേശങ്ങളില് എല്ലാവരും തന്നെ മലയാളം കൂടുതല് യൂസ് ചെയ്യുന്നവരാണ് ഇവിടെ ഞങ്ങളുടെ പ്രദേശമെന്ന് പറഞ്ഞാല് വളരെ ഗ്രാമം ഗ്രാമപ്രദേശമാണ് അത് കാരണം തന്നെ ഇംഗ്ലീഷ് പത്രത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിലും വായിക്കുന്നവരുണ്ട് വെല് എഡ്യുക്കേറ്റഡ് ആയിട്ട് നല്ല വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേരുള്ള ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ പിന്നെ ഇംഗ്ലീഷ് പത്രം വരുത്താറുണ്ട് കൂടാതെ അല്ലാത്തവര് മലയാളം സാധാരണ പത്രങ്ങള് ദിനപത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറ് മെയിനായിട്ട് ഞങ്ങളുടെ ഇവിടെ ഈ ഈ പത്രങ്ങളാണ് ഇവിടെ അച്ചടിച്ച് വരാറ് അത് എല്ലാ ദിവസവും കിട്ടാറില്ല കിട്ടുന്നത് ചിലപ്പോള് തലേ ദിവസത്തെയൊക്കെയായിരിക്കും അങ്ങനെ വായിക്കുന്നവരുണ്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് അവരൊക്കെ വാങ്ങിക്കുന്നുണ്ട് നല്ല അഭിപ്രായം തന്നെയാണ് പത്രത്തെക്കുറിച്ചുള്ളത്